ഞാൻ എന്താ പറയുക ധ്യാനവും പ്രാണായാമവും ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ഉന്മേഷവും പിന്നെ നമ്മുടെ ശാരീരിക എന്താ പറയുക അസ്വാസ്ത്യങ്ങൾ ഒക്കെ നമുക്ക് പോകുകയും ചെയ്യും നമ്മൾ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഡെയിലി ഈ യോഗയൊക്കെ ചെയ്യുന്നത്കൊണ്ട് നമുക്ക് നല്ല ഗുണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ യോഗ ചെയ്യാൻ എല്ലാരും തിരുമാനിക്കുക തന്നെ വേണം ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്താ പറയുക ഒരു നമ്മൾ ഇപ്പോൾ വേറെ ഒരു ചിന്തയിലും ഇല്ലാണ്ട് നമ്മൾ ധ്യാനം എന്താ പറയുക ഒരു സ്ഥലത്ത് ഇരുന്നു ധ്യാനിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് പിന്നെ പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രാണായാമം അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഗുണമാണ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ നമ്മൾ ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക മൈൻഡ് മാറുകയും നമ്മുടെ സ്ട്രെസ്സ് ഒക്കെ ഒഴിവാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കുകയും ചെയ്യാം നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല നമ്മൾ ആരോഗ്യവാൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതെന്തായാലും ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും കഴിയുന്നതും ചെയ്യാൻ നോക്കുക